ഞങ്ങൾ പണ്ടു കാലത്ത് പഠിച്ചു കൊണ്ടിരുന്നപ്പം ഞങ്ങൾ ആ ഇതൊന്നും സ്കൂളിൽ പഠിപ്പിക്കുന്നില്ലായിരുന്നു പക്ഷേ പുതിയ തലമുറകൾക്ക് ഇതിനെല്ലാം നല്ല പ്രോത്സാഹനമാണ് ഗവൺമെൻറ് കൊടുക്കുന്നത് സ്കൂളിൽ കൊടുക്കുന്നത് സ്കൂളിൽ ഇതിന് പ്രത്യേകമായി ഒരു ആഴ്ചയിൽ ഒരു ക്ലാസുകൾ വെച്ച് ഉണ്ട് അവരെ എൻ്റെ കൊച്ചു മോനാണേ സ് ചിത്രരചനയിൽ വളരെ താത്പര്യമുള്ളയാളാണ് അവൻ യൂട്യുബ് നോക്കിയും ഓരോ പടങ്ങൾ നോക്കിയും ഒക്കെ നല്ല രീതിയിൽ വരച്ച് പഠിക്കുന്നുണ്ട് ക്രയോൺസ് വാട്ടർ കളർ ഒക്കെ ഇതിന് അവന് ഉപയോഗിക്കാൻ ഞങ്ങൾ വാങ്ങിച്ച് കൊടുക്കും അവനത് വെച്ച് എല്ലാം നല്ലപോലെ ഈയിടെയാണ് ശിശുദിനത്തിൻ്റെ അന്ന് നവംബർ പതിനാല് ശിശുദിനത്തിൻ്റെ അന്ന് അവൻ ചാച്ചാജിയുടെ പടം വരച്ച് എല്ലാവരും നല്ല പ്രോത്സാഹനം സ്കൂളിൽ നിന്നും കിട്ടി ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെല്ലാം ഞങ്ങൾക്ക് നല്ല പ്രോത്സാഹനം അവന് കൊടുക്കുകയും ഓരോ ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്തിരുന്നു അവൻ അതിൽ വളരെ സംതൃപ്തരായി ഇനി എനിക്ക് വരക്കണം പഠിക്കണം എന്നൊക്കെയാണ് അവൻ പറയുന്നത് അത് എനിക്ക് വളരെ അനുഭവമായിട്ടാണ് തോന്നുന്നത് അതുപോലെ നാം സു ഇവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കാനായിട്ട്എല്ലാം ക്രയോൺസും വാട്ടർ കളറും കളറും പേപ്പറും പെൻസിലും അത് എല്ലാം നാം വാങ്ങിച്ച് കൊടുത്താൽ മതി അവർ പ്രോത്സാഹന പഠിച്ച് കൊള്ളും വരച്ച് കൊള്ളും